പാത്രം കഴുകുവാനായി ആദ്യം ചെയ്യേണ്ടത് പാത്രത്തിലെ മിച്ചമുള്ള അവശിഷ്ടങ്ങൾ എടുത്തു കളയുക എന്നതാണ് അങ്ങനെ അവശിഷ്ടങ്ങളെല്ലാം കളഞ്ഞ ശേഷം പാത്രങ്ങളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂട്ടി വച്ച് അത് വെള്ളത്തിൽ മുക്കി വെക്കുക വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് മുക്കി വെക്കുന്നത് അതിൽ നിന്ന് ചെളികൾ വിട്ട് പോരുന്നതിന് സഹായകമാണ് അങ്ങനെ അഞ്ചു മിനിറ്റോളം വെള്ളത്തിൽ മുക്കിയിട്ട ശേഷം പാത്രങ്ങൾ ഓരോന്നോരോന്നായി കയ്യിലെടുത്ത് പ്രിൽ പ്രില്ലോ വിമ്മോ അതുപോലെയുള്ള ഏതെങ്കിലുമൊരു സോപ്പിലോ അല്ലെങ്കിൽ ബാർ സോപ്പോ ഉപയോഗിച്ച് സോപ്പ് സ്ക്രബറിൽ സ്റ്റീൽ സ്ക്രബർ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബർ ലഭ്യമാണ് അത് ഉപയോഗിച്ച് പതിയെ പതിയെ ഉരയ്ക്കുക പതിയെ ഉരച്ച് അത് വൃത്തി ആയെന്ന് തോന്നുമ്പോൾ ഒന്ന് പതഞ്ഞ് വരുന്നത് കാണുമ്പോൾ വെള്ളം വച്ചത് കഴുകി അതെടുത്ത് മാറ്റി വെക്കുക അങ്ങനെ കഴുകി എടുത്ത പാത്രങ്ങൾ ഒരു ഉണങ്ങിയ ടവ്വലോ ഉണങ്ങിയ ഒരു തുണിയോ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്ത് നമ്മുടെ ഇതിലോട്ട് മാറ്റി വെക്കുക അങ്ങനെയാണ് സാധാരണയുള്ള പാത്രങ്ങൾ കഴുകുന്നത് ഈ എണ്ണയും അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെയുള്ള പാത്രങ്ങൾ കഴുകുവാൻ ഇങ്ങനെ ചെയ്താൽ പോര അതിനു വേണ്ടി അങ്ങനെയുള്ള പാത്രങ്ങളിൽ ചൂട് വെള്ളമൊഴിച്ച് അഞ്ചു മുതൽ പത്തു മിനിറ്റ് വരെ മുക്കി വെക്കുക ചൂട് വെള്ളത്തിലിടുന്നത് എണ്ണ വിട്ടുപോകാൻ സഹായകമാണ് എണ്ണപ്പാത്രങ്ങൾ കഴുകാൻ പൊതുവെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കാരണം സോപ്പ് മാത്രം ഉപയോഗിച്ചത് പോകുന്നതല്ല അതിനായി വിനാഗിരി ബേക്കിങ്ങ് സോഡ തുടങ്ങിയ സാധനങ്ങളും ഉപയോഗിക്കുന്നതാണ് വിനാഗിരിയും ബേക്കിങ്ങ് സോഡയും എണ്ണയുള്ള പാത്രങ്ങളിലോട്ടിട്ട് രണ്ട് മിനിറ്റ് അനക്കാതെ വെക്കുക അങ്ങനെ അനക്കാതെ വെച്ച ശേഷം അത് പുറത്തുകൂടെ സോപ്പും കൂടെ ഒഴിച്ച് പതപ്പിച്ച് സ്റ്റീൽ സ്ക്രബറ് തന്നെ ഉപയോഗിച്ച് ഉരയ്ക്ക്ക അങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ ഇത് പത നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ വെള്ളം ഒഴിച്ച് അത് കഴുകി മാറ്റി വെക്കുക അങ്ങനെ കഴുകി മാറ്റിവച്ച ശേഷം മറ്റു പാത്രങ്ങളെപ്പോലെത്തന്നെ ഉണങ്ങിയ ടവ്വലോ തുണികൊണ്ടോ അത് തുടച്ച് എടുത്ത് മാറ്റിവെക്കാവുന്നതാണ്